ഇപ്പോൾ കോഴിക്കോടു ജില്ല പൊതുവെ വികസനത്തിലേയ്ക്ക് എത്തിനിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ് ഞാ രാജ്യം പോകട്ടെ സംസ്ഥാനം തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനത്തിൽ വെച്ചു നോക്കുമ്പോൾ നമുക്ക് എറണാകുളം പോലെയുള്ള സം സംസ്ഥാനത്തിൻ്റെയത്ര എത്തിയിട്ടില്ലെങ്കിലും എന്തായിത് എറണാകുളം പോലുള്ള ഒരു ജില്ലയിലേക്ക് എത്തിട്ടില്ലെങ്കിലും നമ്മൾ നോക്കുമ്പോൾ എന്താ പറയുക അത്യാവശ്യം പുരോഗതിയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ് നമ്മുടെ കോഴിക്കോടും കോഴിക്കോട് എന്നു പറഞ്ഞാൽ അത്യാവശ്യം വലിയ ടൗൺ തന്നെയാണ് ഇപ്പോൾ ഞാൻ പറയുമ്പോൾ എന്താ പറയുക ഇവിടെ ലഭിയ്ക്കാത്ത സാധനങ്ങളായിട്ടു വളരെ ചുരുക്കം മ സാധനങ്ങൾ മാത്രമുള്ളൂ ഇപ്പം നമുക്ക് ഗതാഗത മാർഗ്ഗമായിക്കോട്ടെ ടെക്നിക്കൽ അതായത് ഇപ്പോൾ സാമ്പത്തികപരമായിട്ടും എന്താ പറയുക സാംസ്കാരികപരമായിട്ടും അങ്ങനെ ഒരുപാടു നേട്ടങ്ങൾ നമുക്കു കൈവരിയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പം അത്യാവശ്യം നല്ല രീതിക്കന്നെ നമ്മൾ എന്താ പറയുക ഇപ്പോൾ റോഡ് ഗതാഗത മാർഗ്ഗങ്ങളായിക്കോട്ടെ പുതിയ പുതിയ തൊഴിലവസരങ്ങളായിക്കോട്ടെ പുതിയ ഫാക്ടറികൾ പോലുള്ള അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും എന്താ പറയുക കോഴിക്കോട് ജില്ല അത്യാവശ്യം ഇപ്പോൾ ഉന്നതിയിലേയ്ക്ക് എത്തിനിൽക്കുന്ന ഒരു സമയം തന്നെയാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയും എന്താ പറയുക ഉന്നത എന്താ പറയുക ഒരു പ്രശസ്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് എന്നാണ് സോറി ഒരു ഒരു ജില്ലതന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം